മലയാള ഭാഷയ്ക്ക് ഉണ്ടായ വികാസം എന്ന് വെച്ചാൽ ശോഷണമാണ് നല്ലൊരു ഭാഷയെ സന്ധി സംഭാഷണങ്ങളോട് കൂടിയിട്ടുള്ള എല്ലാവിധ ഗ്രാമറ്റിക്കൽ ക്ലിയറായിട്ടുള്ള ഒരു നല്ല ഭാഷ അത് വികസിച്ചു കൊണ്ട് വന്നിരുന്ന ഭാഷയാണ് അതിന് നല്ല രീതിയില് എഴുത്തുകാരായിട്ടും ഒക്കെ നല്ല രീതിയിൽ അതിന് സാഹിത്യപരമായിട്ടൊക്കെ നല്ല മാറ്റ ഇത് വന്നിട്ടുണ്ടായിരുന്നു

ആ മാറ്റത്തെ മുഴുവൻ ചവിട്ടി മെതിച്ച് കൊണ്ട് മറ്റ് ജോലിക്ക് വേണ്ടി അല്ലേൽ മറ്റുള്ള നാട്ടുകളിൽ നാടുകളിൽ പോയി നിന്ന് കാര്യങ്ങള് നിർവഹിക്കണത് കൊണ്ടും ബിസിനസിലൊക്കെ ഇൻറർനാഷണൽ ഭാഷയാണ് കൂടുതൽ അഭികാമ്യം അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ളത് എന്നതുകൊണ്ടും കാലക്രമേണ മലയാളഭാഷയില് ശോഷണം സംഭവിച്ചു എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ ഇപ്പോൾ മലയാള ഭാഷ ഈ തലമുറക്ക് കൈകാര്യം ചെയ്യാൻ വല്യ താൽപര്യം ഇല്ല അറിയുകയും ഇല്ല സന്ധി സമാസങ്ങളൊന്നും അവർക്ക് പഠിക്കാനും ഇല്ല നോക്കേണ്ട കാര്യവും ഇല്ല എന്തെങ്കിലുമൊക്കെ എഴുതി വയ്ക്കുക അല്ലെങ്കിൽ എന്തൊങ്കിലുമൊക്കെ പറയുക അത് ഇപ്പോൾ ഓരോ ജില്ലയിലും ഓരോ ഗ്രാമത്തിലും ഓരോ തരത്തിലുള്ള ഭാഷയായതുകൊണ്ട് മലയാള ഭാഷ കൃത്യമായി സംസാരിക്കാൻ ഇപ്പോൾ ആർക്കും താൽപര്യമില്ല അല്ലെങ്കിൽ ആ കഴിവില്ലാതെ ആയി മാറുന്നുവെന്നുള്ളതാണ് ഇന്നത്തെ സത്യത്തിലുള്ള അവസ്ഥ മലയാള ഭാഷയ്ക്കു കോമണായിട്ട് പറഞ്ഞാൽ ശോഷണം സംഭവിച്ചു ഭാഷക്ക് വികസിച്ചോ ഒരുപാട് പുതിയ പുതിയ പദങ്ങളൊക്കെ ചേർത്തു എങ്കിലും അതൊന്നും മലയാളഭാഷയുടെ പദങ്ങളാണ് എന്ന് പറയാൻ പറ്റില്ല ഒരോർത്തർക്കും തോന്നുന്നത് വിളിച്ചു പറയുക അല്ലെങ്കിൽ ഓരോ തോന്നുന്ന രീതിയിലുള്ള സംഭാഷണങ്ങൾ നടത്തുക അത് അച്ഛനെ വിളിക്കുന്നതായാലും കൂട്ടുകാരെ വിളിക്കുമ്പോഴായാലും ശരി ഭാര്യ വിളിക്കുമ്പോഴായാലും ശരി അല്ലെങ്കില് സംഭാവന ചെയ്യുമ്പോഴായാലും ശരി ഇതിലൊക്കെയും കലാനുസൃതമായിട്ടുള്ള മാറ്റം ഉണ്ടായി എങ്കിലും നല്ല മാറ്റമായി എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്